എൻ്റെ പ്രിയപ്പെട്ട നാടൻ കായിക ഇനം ഏതാണെന്ന് ചോദിച്ചാൽ കബഡിയാണ് ഇവിടെ ഞങ്ങളുടെ നാട്ടിൽ ഒരു ക്ലബ് ഉണ്ട് അപ്പം അവർ ഇടക്ക് മത്സരങ്ങൾ കൺഡക്റ്റ് ചെയ്യും പ്രധാന ഇനം കബഡി തന്നെയാണ് ഇവിടെ അപ്പോൾ ഞങ്ങളുടെ കുറച്ച് അയൽവാസികളുണ്ട് അവരും ഈ ഒരു ക്ലബിൽ ഉണ്ട് അവരും ഈ ഒരു കബഡി മത്സരത്തിൽ പങ്കെടുക്കാറുണ്ട് കൂടാതെ തന്നെ ഞാനും ഇത് വരെ പങ്കെടുത്തിട്ടില്ല കബഡി മത്സരത്തിൽ പക്ഷേ പെൺകുട്ടികൾ ഇവിടെ കബഡി മത്സരത്തിൽ പങ്കെടുക്കാറുണ്ട് അത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു സവിശേഷതയെന്ന് പറയുന്നത് ആൺകുട്ടികൾ മാത്രമല്ല പെൺകുട്ടികളും കബഡി മത്സരത്തിൽ പങ്കെടുക്കാറുണ്ട് നല്ല രസമാണ് കണ്ടുകൊണ്ടിരിക്കാൻ ആയിട്ട് ആൺകുട്ടികളും ആൺകുട്ടികളായിട്ട് കബഡി മത്സരം സംഘടിപ്പിക്കും അതുപോലെ പെൺകുട്ടികളും പെൺകുട്ടികളായിട്ട് ചിലപ്പോഴൊക്കെ കുറച്ച് ചെറിയ ചെറിയ അപകടങ്ങളൊക്കെ വരാറുണ്ട് ചെറുതായിട്ട് അതൊക്കെ കളിയുടെ ഒരു ഭാഗമാണെന്ന് കരുതിയിട്ട് അവർ അതങ്ങ് മാനേജ് ചെയ്യും പിന്നെ നല്ല രസമാണ് കണ്ടുകൊണ്ടിരിക്കാനായിട്ട് കബഡി പെട്ടെന്ന് തന്നെ കഴിയുകയും ചെയ്യും അതുപോലെ ഒരു നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ ഒരു ത്രിൽ ആണ് എന്ത് ആര് ആര് വിൻ ചെയ്യും ആരാണ് നല്ല കളിക്കാർ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ പൊതുവേ കബഡി കാണാനാണിഷ്ടം ഇതുവരെ പങ്കെടുത്തിട്ടില്ല